ഞാനൊരു ബാഗ് വാങ്ങി ബാഗ് വാങ്ങിയിപ്പോൾ നല്ലതാണ് തോന്നി വീട്ടിൽ വന്നു നോക്കുമ്പോൾ അതിനു സിബ്ബുമില്ല സിബ്ബൊരറ്റ വലിക്കു പോന്നു പിന്നെ ഉള്ളിലാണെങ്കിലോ പൈസയിടണ അറയുണ്ട് വിചാരിച്ചു അതുമില്ല പിന്നെ നോക്കുമ്പോൾ ഒക്കെ കീറിയതു കൊണ്ടാണ് എന്താ ഇപ്പമിത് ചെയ്യാന്നൊന്നും നിച്ചമില്ല അതിന്റെ രണ്ടു വള്ളിയും പോന്നിട്ടുണ്ട് അ പിന്നെ എന്താ അവിടെത്തന്നെ കൊണ്ടു കൊടുക്കാന് പറ്റുമോ എന്നുള്ളതറിയില്ല അത്രക്കും മോശമായി ആ ബാഗ് അറിയില്ല പൈസ തരാനുള്ള സംസാരവുമില്ല ഒക്കെ ക് ഉള്ളിലൊക്കെ കീറി ഒരു ഞാൻ കളർ കണ്ടു കൊണ്ടു വാങ്ങിയതാണ് നല്ല ബേഗാണെന്നു വിചാരിച്ച് അപ്പോൾ ബേഗ് നോക്കും വീട്ടിൽ വന്നു നോക്കുമ്പോഴാണ് ഒന്നും പറ്റില്ല എൻ വള്ളിയും പൊട്ടി അതിന്റെ സിബ്ബാണെന്നു വെച്ചാൽ സിബ്ബും പോയെന്നു പിന്നെ അതിലൊരു രണ്ട് ഒരു കുടയും ഒരു സാരിയും ഇടണതു കൊണ്ട് വെയ്ക്കണേ അതു നിറഞ്ഞു പിന്നെ ഒന്നിനും പറ്റില്ലാ സാരി അല്ല ബേഗ് ഒരു കേടു വന്ന ബേഗ് എന്